എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പശുക്കളെ വളർ വളർത്തുക ആടുകളെ വളർത്തുക അതുപോലെ കോഴി ഫാം മുയൽ ഫാം അതൊക്കെ കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇപ്പം ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു കൊ കോഴിയിനെയോ അല്ലെങ്കിൽ താറാവിനെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് മുട്ടയും കിട്ടും അതു പോലെ കോഴിയുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരു അതായത് എന്താ ചെടികൾക്കൊക്കെ വളമായിട്ടിട്ടു കഴിഞ്ഞിട്ടുണ്ട് ഒരു ജൈവ വളം തന്നെയാണ് ഇല്ലേ അത് ഈ വേറെ ഉണ്ടെങ്കിൽ അത് ബെസ്റ്റായിരിക്കും അതു പോലെ പശുവിൻ്റെ ആണെങ്കിലും ആടിൻ്റെ ആണെങ്കിലും പശുവിൻ ചാണകം ഏലത്തിനൊക്കെ ഏലത്തിനും അതുപോലെ കൊടിക്കൊക്കെ ഏറ്റവും ഉണക്കിയ ചാണകമൊക്കെ ബെസ്റ്റാണ് ഇന്നുള്ള പണ്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാം ചാണകം വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് അത് ഒരു സമയത്ത് ഏലത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ചുവട്ടിലൊക്കെ കൊടിയുടെ ചോട്ട കുരുമുളക് അല്ല കൊടിയുടെ ചുവട്ടിലൊക്കെ കൊണ്ടിടുന്നത് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് ഏ ഏലത്തിനോ അതു പോലെ എന്തിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് കർഷകർക്ക് വളരെയധികം അതായത് അത് കൊടുക്കുന്നതിനുള്ള ഫലം നമുക്ക് തിരിച്ചു കിട്ടും പശുവിനെ വളർത്തുന്നത് ചാണകത്തിനു വേണ്ടി മാത്രമല്ലത് പാൽ പാൽ നമ്മൾ വെളിയിൽ നിന്നു വാങ്ങുകയാണെ പാലിന് ഇപ്പം മുപ്പതു രൂപയാണ് ഇരുപത്തഞ്ച് രൂപ മുപ്പതു രൂപയാണ് ഇപ്പോഴത്തെ വിലയെന്നു പറയുന്നത് പക്ഷെ നമ്മുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് പാലും കിട്ടും അതു പോലെ നമ്മുടെ പ പറമ്പിലോട്ട് ആവശ്യത്തിനുള്ള വളമായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ടതായിട്ടു വരുന്നില്ല ആടിൻ്റെ കാര്യം ആണെങ്കിലും അങ്ങനെ വേറൊരു കാര്യം ഈ പശുക്കൾ ഉണ്ടെങ്കിൽ പശുക്കളുടെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞു കഴിയുമ്പം ഇപ്പം ഒരു വലിയൊരു ഫാമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പശുവിനെ മേടിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി വെളിയിൽ വിറ്റാൽ പോലും ഒരു വലിയൊരു ലാഭം തന്നെയാണ് പക്ഷെ കുറച്ചു കഷ്ടപ്പെടണം പുല്ലു ചെത്തലും അതു പോലെ വെള്ളം കൊടുക്കുന്ന പരിപാടിയൊക്കെ കുറച്ചു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിയാൽ നമുക്ക് കുറച്ചൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റത്തുള്ളൂ അത്രയേ അതുപോലെ മുയലിൻ്റെ ഒക്കെ ആണെങ്കിൽ മുയൽ മുയൽ പെറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ നല്ല രീതിയിൽ നോക്കി വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ന വെളിയിൽ വിക്കുകയാണെങ്കിൽ ഒരു ഒരു കുഞ്ഞ് ഒരു ഒറ്റ പ്രസവത്തിൽ ചിലപ്പം പത്തും പന്ത്രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മുയലിൽ നിന്ന് അത്രയും കുഞ്ഞുങ്ങളെ കിട്ടുകയെന്നു പറയുന്നത് അതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുത്ത് വിക്കാറാക്കി എടുക്കുകയെന്നു പറയുന്നത് ഒരു വലിയ ഉപകാരമാണ് ഒന്നെങ്കിൽ അതിനെ വളർത്താനായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫാമിൽ വെട്ടാനായിട്ട് കൊടുക്കുക അതാണെങ്കിൽ നമുക്ക് ക കർഷകർക്ക് ഒരു ലാഭ വിഹിതം കിട്ടുന്ന ഒന്നു തന്നെയാണ് വേറെ എന്താ മീൻ വളർത്തലാണെങ്കിലും ഇതു പോലെയൊക്കെ തന്നെയാണ് നമുക്ക് ഒരു ഒരു പത്തു മീനിനെ കൊണ്ടു പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതു കുഞ്ഞുങ്ങളുണ്ടാകുമെന്നു പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും വെളിയെ കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ലാഭങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഇതൊക്കെ ഈ പണ്ടു മുതലേ ഉള്ള ആളുകളൊക്കെ തുടങ്ങി വരുന്ന ഒന്ന് പക്ഷെ ഇപ്പം വളരെ കുറവാണെന്നു മാത്രമേ ഉള്ളൂ